അതെ എടാ ഇത് ഞാനാണെടാ പിന്നെ ഞാനൊരു പടത്തിന് പോയാലോ എന്നിങ്ങനെ ആലോചിക്കുകയാണ് കാരണം ആകെ വർക്കിൻ്റെ പ്രഷറും എല്ലാം കൊണ്ടൊക്കെ ആകെയൊരു മൈൻഡ് ഔട്ടാണ് ഒന്നാമത് സ്ട്രെസ്സ് ഒന്ന് റിലാക്സ് ആകാനൊക്കെ ഒന്ന് പുറത്തുപോയാലെ പരിപാടി നടക്കുകയുള്ളൂ അതിന് ഞാനൊരു മൂവിക്ക് പോയാലോയെന്ന് ആലോചിക്കുന്നുണ്ട് ഏതാണെടാ ബെറ്റര് മൂവി ഞാനുദ്ദേശിക്കുന്നത് നമ്മുടെ ലാലേട്ടന്റെ മൂവിയില്ലേ തുടരും അത് കണ്ടാലോയെന്നാണ് നല്ല ഫാമിലി ഓറിയൻറ്റഡ് മൂവിയാണ് കാണാനും നല്ല അഭിപ്രായവും നല്ല റിവ്യുവും കാര്യങ്ങളുമൊക്കെയാണെന്നാണ് തോന്നുന്നത് ഏഹ അത് പോയി കണ്ടാലോയെന്ന് ആലോചിക്കുകയാണ് എന്താണ് നിൻ്റെ അഭിപ്രായം കുഴപ്പമില്ലല്ലോ പക്ഷെ ഏത് സമയത്താണ് പോയി കാണുക ആകെയൊരു എന്താണെന്നാണ് പറയുക മൈൻഡൊക്കെ ഔട്ടായി ആ ഒരു രാവിലെയല്ല വൈകിട്ട് വിട്ടാലോ ഒരു ആറരയുടെ ഷോവിന് ഞാൻ പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത് അത് പോയി കണ്ടാലോ ആറരയ്ക്ക് കാണാമല്ലേ അതായിരിക്കും ബെറ്റർ ഓപ്ഷൻ ബെറ്റർ ചോയ്സ് കാരണം ഒന്ന് റിലാക്സ് ആകാനൊക്കെയൊരു പടം കണ്ടാലേ ഇപ്പോള് ശരിയാവുകയുള്ളൂ എന്തായാലും ആറരയ്ക്ക് പോകാം പടത്തിന്